ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലാൻ്റ്മാർക്കുകളോ അല്ലെങ്കിൽ വിനോദസഞ്ചാരകേന്ദ്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മവരുന്നത് താജ്മഹൽ തന്നെയാണ് ഒരാൾ ഡെല്ലിയിലൊക്കെ വിനോദസഞ്ചാരത്തിന് പോകുന്നത് ടൂറിസ്റ്റ് ഏറ്റവും കൂടുതൽ പോകുന്നത് ആഗ്രയിലോട്ട് തന്നെയാണ് താജ്മഹൽ വിസിറ്റ് ചെയ്യാൻ പിന്നെ അതിൻ്റെ അടുത്ത് പിന്നെ അടുത്ത് ഡൽഹിയിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരത്തിന് പോയിട്ടുള്ള സ്ഥലം കുത്തബ്മിനാറാണ് പിന്നെ ഇത് രണ്ടുമല്ലാതെ ആൾക്കാർ ഇന്ത്യ ഗേറ്റ് പിന്നെ വേറെ ഒരെണ്ണമാണ് ഗേറ്റ്വേ ഓഫ് ഇന്ത്യ ഇവിടെയൊക്കെ ആൾക്കാർ വിനോദസഞ്ചാരികൾ പോകാറുണ്ട് പിന്നെ കുറച്ചുകൂടി മുതിർന്നവർ പിൽഗ്രിമേജിന് വേണ്ടി വർഷം വർഷങ്ങളായി പോകുന്നവരും ഉണ്ട് കാത്തിരുന്ന് പോകുന്നവരും ഉണ്ട് അതുപോലത്തെ കുറച്ച് സ്ഥലങ്ങൾ ഇപ്പം എടുത്ത് പറയാനായിട്ടുള്ളത് കേദാർനാഥ് കാശി വൈഷ്ണവ്ദേവി ഇവിടെയൊക്കെ ആൾക്കാർ പോകാൻ നല്ല ആഗ്രഹിച്ച് പോകുന്ന കുറച്ച് സ്ഥലങ്ങളാണ് കുടുംബമായിട്ട് പോകുന്നവരുണ്ട് വെക്കേഷൻ അടുപ്പിച്ച് പോകുന്നവരുണ്ട് പിന്നെ അല്ലാതെ ഇപ്പം അടിച്ച് പൊളിക്കാനായിട്ട് പോകാനായിട്ട് ചെറുപ്പക്കാരും അല്ലെങ്കിൽ കുടുംബത്തോടെ തന്നെ പോകുന്ന കുറച്ച് സ്ഥലങ്ങളാണ് പണ്ടുപണ്ടേ പോകുന്നൊരു സ്ഥലമാണ് കശ്മീർ പിന്നെ ഗോവ പിന്നെ പുതുച്ചേരി പിന്നെ ഇപ്പയിപ്പം ആൾക്കാർ അല്ലാതെതന്നെ എന്താ ഡിഫറെൻ്റ് കൾച്ചേർസും അല്ലാതെ ആൾക്കാരെയൊക്കെ പഠിക്കാനായിട്ട് രാജസ്ഥാൻ പിന്നെ നമ്മുടെ സിക്കിം അവിടെയെല്ലാം പോവാറുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ ഒരു ഡൈവേഴ്സ് കൺട്രി ആയതുകൊണ്ട് എല്ലായിടത്തും എന്തെങ്കിലും പ്രത്യേകതയും പഠിക്കാനും എല്ലാമുണ്ട് അപ്പം എല്ലാ സ്ഥലവും അതിൻ്റെ ഇൻ ഇറ്റ്സ് ഓൺ വേയ് യുനീക്കാണ് അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ പറയാനായിട്ടൊരോ കഥകളുമുണ്ട്